എനിക്ക് സന്ദർശിക്കാൻ ഏറെ ഇഷ്ടം ഉള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പ്രകൃതിരമണിയമായ ആയ സ്ഥലങ്ങൾ ആണ് എനിക്ക് സന്ദർശിക്കാൻ എപ്പോഴും ഇഷ്ടം ഉള്ളത് അതായത് പിന്നെ മലകൾ കുന്നുകൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ ഒക്കെ എസ്പ്ലോർ ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതായത് അത് ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു രസമായിരിക്കും പിന്നെ എനിക്ക് മഴയത്ത് ഒക്കെ ബൈക്ക് റൈഡിങ് പോകാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് മഴയത്ത് നനഞ്ഞ് ബൈക്ക് റൈഡിങ് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം ആണ് ഞാൻ എപ്പോഴും ഇവിടെ മഴയൊക്കെ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒക്കെ കൊണ്ട് പോകാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ അവിടെ കൊണ്ട് പോകും അതായത് വലിയ സ്നേഹം ആണ് ഞാൻ എവിടെ കൊണ്ട് പോകാൻ പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും കൊണ്ട് പോകും പിന്നെ കൊച്ചൊക്കെ ആയത് കൊണ്ട് നമുക്ക് അതായത് അതിനെ ഇവിടെ ഇട്ടിട്ട് അവളെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ ആ ഒരു അവസ്ഥ ആയത് കൊണ്ട് മാത്രമേ ഒരു പ്രശ്നം ഉള്ളു പിന്നെ അവൾ കുറച്ച് ആയിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എസ്പ്ലോർ ചെയ്യും അതായത് എൻ്റെ ഭർത്താവും അത്യാവശ്യം ആ ഒരു മൈൻഡ് ഉള്ള ആളാണ് അതായത് പല സ്ഥലങ്ങളും കാണാനൊക്കെ ഇഷ്ടം ഉള്ള ആളാണ് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള കാഴ് കാഴ്ച്ചകൾ കാണാൻ ആണ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ്